മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എനിക്ക് ഞാൻ പത്ത് ആടിനെയും രണ്ടു പശുവിനെയും ഞാന് വളര്ത്തിക്കൊണ്ടിരുന്നതാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിനും നമ്മൾ എന്തെങ്കിലും വയ്യായ്ക വന്നാല് നമ്മൾ പ്രകൃതി പ്രകൃതിദത്ത പ്രകൃതിദത്തമായ മരുന്നുകളാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് എന്ത് വന്നാലും നമ്മൾ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടുന്നതിനും പച്ചമരുന്നുകള് മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ അവരെ പരിപാലിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു പിന്നെ സന്തോഷം തരുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്ക് അവരുടെ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യരോട് പറയുന്നതിനേക്കാളും നമ്മൾ അവരുടെ അടുത്ത് പോയി നിന്ന് അവരുടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പകുതി മനസിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നവര്ക്ക് മറുപടി പറയാന് പറ്റത്തില്ല എങ്കിൽ പോലും നമുക്ക് അവരില് നിന്നും നമുക്ക് കരച്ചിലും ഇതൊക്കെ കേള്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടം ഉള്ള കാര്യമാണ് ഇങ്ങനെ മൃഗങ്ങളെ വളര്ത്തുക എന്നുള്ള കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിൽ പത്ത് ആടുണ്ടായിരുന്നു ഇപ്പം അവയെ എല്ലാം കൊടുത്തു പിന്നെ രണ്ടു പശുവുണ്ട് പിന്നെ പട്ടിക്കുഞ്ഞുണ്ട് കോഴിയുണ്ട് എല്ലാവിധ മൃഗങ്ങളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ നോക്കുമ്പം നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും ബുദ്ധിമുട്ട് ഉള്ളപ്പം അവർക്ക് വേണ്ടി നമ്മൾ തീറ്റ പറിക്കാനാണെങ്കിലും അവരെ പട്ടിണിക്ക് ഇടരുതല്ലോ എന്ന് ഓർത്തു നമ്മൾ ഓരോ ഇതിനു വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ തന്നെ നമ്മൾ തന്നെ മറക്കുന്ന ഒരു സാഹചര്യം ആണ് നമ്മൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിലും നമുക്ക് അത് ഒരു വിഷമമില്ല പക്ഷേ അവരെ നമുക്ക് പട്ടിണിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് എന്ത് വയ്യായ്ക വന്നാൽ പോലും നമ്മൾ അവരിലേക്ക് നോക്കി കഴിയുമ്പോൾ അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങിപ്പോകും ഇപ്പോൾ നമ്മൾ അതിലോട്ടു ശ്രദ്ധ പുലര്ത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പിന്നെ ഒത്തിരി ശരീരം ഇതായിട്ടു വേദന ഉണ്ടായാലും നമ്മൾ അത് മറക്കും അവരെ നോക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് എനിക്ക് ഒത്തിരി ഉപകാരം ഈ തന്നിട്ടുള്ള എന്റെ രണ്ടു മക്കളെയും പഠിപ്പിച്ച് വളർത്താന് വേണ്ടി പിന്നേ അവർക്ക് കോളേജ് ചേർക്കാൻ ആണെങ്കിലും എല്ലാ ഫീസ് അടയ്ക്കാൻ ആണേങ്കിലും എനിക്ക് ഇവരില് നിന്നും ഞാന് വളര്ത്തിയ മൃഗങ്ങളില് നിന്ന് തന്നെ ഞാൻ ഞാന് സമ്പാദിച്ചതാണ് അത് നമ്മൾക്ക് ഒത്തിരി ഒന്ന് സമ്പാദിക്കാന് പറ്റത്തില്ലാ എന്ന് പറഞ്ഞാൽ പോലും അവരില് മുന്നോട്ട് നമ്മൾ നടത്തിക്കുമ്പോൾ നമുക്ക് അവർ അതിന്റേതായ നമുക്കും അവർ പറ്റുന്നത് പോലെ പാലാണെങ്കിലും എല്ലാം നമുക്ക് തന്നു കൊണ്ടിരിക്കും നമ്മൾ അവരെ എങ്ങനെ സ്നേഹിക്കുന്നോ അത് അനുസരിച്ചാണ് അവരും നമ്മളെ പിന്നെ നമുക്ക് തരുന്നത് പിന്നെ മരുന്നുകളൊക്കെ ആണെങ്കിലും നമ്മൾ മെഡിക്കൽ സ്റ്റോറില് നിന്നൊന്നും സാധാരണ മരുന്നൊന്നും മേടിച്ചൊന്നും കൊടുക്കാറില്ല നമ്മുടെ പൂര്വികർ നമുക്ക് ഓരോ മരുന്നുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും ഇന്ന ഇന്നത് ചെയ്താൽ മതി അപ്പോൾ നമ്മൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഘട്ടങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു മാറുന്നും ഉണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് മാറാതെ വരുന്നത് മാത്രം നമ്മൾ ഡോക്ടര്മാരെ സഹായം തേടാറുള്ളൂ പിന്നെ ഒത്തിരി എനിക്ക് പ്രയോജനം തന്നിട്ടുണ്ട് നമുക്ക് ഒരു വിഷമം ഇതുവരെ തോന്നിയിട്ടില്ല അവരെ വളര്ത്തുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാല് പോലും നമുക്ക് അവർ ഉള്ളത് കൊണ്ട് നമുക്ക് നമുക്ക് പെട്ടന്ന് തിരിച്ചു വരാനും നമുക്ക് അവരെ നോക്കണമെന്നുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയില് നമുക്ക് അവരെ സംരക്ഷിക്കാന് പറ്റും എനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അവരെ പരിപാലിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് എനിക്ക് ഞാന് തന്നെ അല്ല എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ മക്കളാണെങ്കിലും ഭര്ത്താവാണെങ്കിലും അവർ എല്ലാം എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തീര്ന്നിട്ടില്ല